വസ്ത്രധാരണം ഒരാളുടെ പെരുമാറ്റത്തെ പെരുമാറ്റത്തെയും ആ ഒരാളുടെ സ്ഥാനത്തെയും കുറയ്ക്കുന്നതാണ് എനിക്കുള്ളൊര് ബോധ്യം എനിക്കുണ്ട് പക്ഷേ സിനിമകളിലെ വസ്ത്രങ്ങളെല്ലാം നോക്കി ഒരാളെ വിലയിരുത്തുന്നത് മോശമാണ് അത്പോലെ തന്നെ സിനിമകളിലെ നായകനിടുന്ന വസ്ത്രങ്ങൾ അതേപോലെ ഒരു ഫങ്ഷനോ അതല്ലങ്കിൽ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ട് പോകേണ്ട ഒരാവശ്യവും ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല ഞാനത് ചെയ്തിട്ടുമില്ല